ആ നീന്തലും പദയാത്രയുമൊക്കെ ഞാൻ ജസ്റ്റ് കണ്ടിട്ടോള്ളൂ അല്ലാതെ ഞാൻ ഇതിൽ പങ്കെടുത്തിട്ടൊന്നുമില്ല പക്ഷേ ക്രിക്കറ്റ് ഞാൻ ചെറുപ്പം മുതലേ ക്രിക്കറ്റ് കാണാറുണ്ടായിരുന്നു എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ സഹോദരൻ എപ്പോഴും ക്രിക്കറ്റ് കളി കാണുന്ന ആളായിരുന്നു അപ്പം ഞാൻ ടി വിയിൽ നടക്കുന്ന ഒട്ടുമിക്ക കളികളും ചെറുപ്പത്തിലെ കണ്ടിട്ടുണ്ട് പിന്നെ ഈ ഇടയ്ക്ക് ഞാൻ കണ്ടെന്ന് പറയുന്നത് ഇന്ത്യാ ഓസ്ട്രേലിയും തമ്മിലുള്ള വേൾഡ് കപ്പായിരുന്നു അത് ഇന്ത്യ ജയിക്കുമെന്ന് തന്നെയായിരുന്നു എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ആദ്യമേ തന്നെ ഇന്ത്യയ്ക് ടോസ്സ് നഷ്ടപ്പെടുകയും ഇന്ത്യ അവരെ ബാറ്റിംഗിന് വിടുകയും ചെയ്തു അതുകൊണ്ട് അപ്പം തന്നെ പിൻ തുടരെ തുടരെ ഇന്ത്യയുടെ കളിക്കാരെല്ലാം തന്നെ ഔട്ടായി പോവുകയും ചെയ്തു എങ്കിലും ഇന്ത്യയുടെ വിരാട് കോഹ്ലിന്ന് പറഞ്ഞിട്ടുള്ള കളിക്കാരനെ എനിക്ക് നല്ല ഇഷ്ട്ടമായിരുന്നു അദ്ദേഹം നിന്നിട്ട് ഇന്ത്യയെ ജയിപ്പിക്കുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ആ കളിയിൽ ഇന്ത്യ തോൽക്കുകയും ഓസ്ട്രേലിയ വേൾഡ് കപ്പ് ജയിക്കയും ചെയ്തു എന്ന് ഇരുന്നാലും നമ്മുടെ കളിക്കാരെല്ലാം തന്നെ വളരെ നല്ല മികച്ച പ്രകടനമൊക്കെ കാഴ്ചവെച്ചിരുന്നു അതുകൊണ്ട് എനിക്ക് ക്രിക്കറ്റിനെ കുറിച്ച് മാത്രമേ കുറച്ചെങ്കിലും ഇതിൽ അറിവുള്ളു